മൃഗങ്ങളെ പരിപാലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആകെയുള്ളത് ഒരു പട്ടിയാണ് സാധാ നാടൻ പട്ടിയാണ് വീടിനോട് ചേർന്ന് നല്ലൊരു കൂട് ആദ്യം തന്നെ അതിന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓടൊക്കെ മേഞ്ഞ് സൈഡ് ഒക്കെ വാർത്ത് നമ്മുടെ കമ്പി കൊണ്ട് ജനലൊക്കെ അതായത് നമ്മുടെ സാധാ നമ്മള് മറ്റേ ഹോളോബ്രിക്സ് ഒക്കെ മേടിക്കുന്നിടത്തുന്ന് മേടിക്കുന്ന സിമൻറ് കൊണ്ട് ഉണ്ടാക്കിയ ജനല് ചെറു വാതിലൊക്കെ വച്ച് അതിന് വെയ്സ്റ്റ് കഴുകി കളയാൻ ഉള്ള ഹോള് കാര്യങ്ങൾ എല്ലാം ഉണ്ട് നല്ല വൃത്തിയായിട്ട് ഒരു കൂടു പണിതിട്ടുണ്ട് അതിനകത്ത് ആണ് നമ്മൾ അതിനെ വളർത്തുന്നത് കൃത്യമായിട്ട് നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട് എല്ലാ ആഴ്ചയിലും ഈരണ്ടു ദിവസം വീതം മാർക്കറ്റിൽ നിന്ന് എല്ല് മേടിക്കും എല്ല് വേവിച്ച് മഞ്ഞപ്പൊടിയും മുളകുപൊടി നമ്മൾ സാധാ കറി വീട്ടിൽ കറി എങ്ങനെ വയ്ക്കുന്നോ അതേപോലെ മസാലയൊക്കെ ഇട്ട് വേവിച്ച് നല്ല വൃത്തി ആയിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത് അതേപോലെതന്നെ എല്ലാദിവസവും കൂട് വെള്ളമടിച്ച് വൃത്തിയാക്കി കഴുകും പട്ടിനെ ഒന്നരാടം ഒന്നരാടം കുളിപ്പിക്കും നന്നായിട്ടാണ് വളർത്തുന്നത് പാപ്പി എന്നാണ് ഞങ്ങള് ആ പട്ടിനെ വിളിക്കുന്ന പേര്